പാമ്പ്കടിയോ പ്രാണികളുടെ കുത്തലോ പോലുള്ള മൃഗങ്ങളുടെ കടികളിൽ നിന്ന് സുരക്ഷിതമായി ഇരിക്കുവാൻ കൂട്ടമായ പാമ്പോ പ്രാണികളോ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുക പാമ്പ് ഇണ ചേരുന്ന സമയങ്ങളിൽ അതിൽ നിന്നും അകലം പാലിക്കുക അതുപോലെ പാമ്പ്കടി ഏക്കാതിരിക്കുവാനായിട്ട് ഒരു പാമ്പും ഒര് പ്രാണിയും അതിനെ ആക്രമിക്കുന്നു എന്നുള്ള തോന്നലുകൾ അതിനുണ്ടാക്ന്ന സാഹചര്യത്തിൽ മാത്രമേ അത് മനുഷ്യരെ ആക്രമിക്കുവാൻ മുതിരുകയുള്ളൂ അതുകൊണ്ട് നമ്മള് സഹജീവികളോട് അനുകമ്പ കാണിക്കുക സഹജ് ജീവികൾക്കും ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് എത്രമാത്രം ജീവിക്കുവാൻ അവകാശമുണ്ടോ അതുപോലെ അവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എന്നുള്ളൊരു ബോധ്യം ഇപ്പം നമ്മള് പ്രാണികളുമായും പാമ്പ്കളുമായും കാണേണ്ട അല്ലെൽ ഇടപഴകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫോർമുല ഫോളോ ചെയ്താൽ അത് ഏറെ ഗുണകരമായിരിക്കും പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ പാമ്പ്കടിയേറ്റ് അല്ലെങ്കിലെ ചെറിയ പ്രാണികളുടെ കുത്തലുകളേറ്റ് ചികിത്സ ചെയ്യുന്നതിനേക്കാളും ഉചിതം ആ സാഹചര്യത്തിൽ നിന്നും ഒഴിവായി നിൽക്കുകയാണ് ഓക്കെ താങ്ക്യൂ